എൽ പി ജി കണക്ഷൻസും ഉണ്ട് അത് ഇപ്പം ഈ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് എൽ പി ജി ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും വിറക് ഉപയോഗിച്ചോ ചേരി ഉപയോഗിച്ചോ ഓല ഉപയോഗിച്ചോ ഒന്നും നമക്ക് തീ വയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം നമുക്ക് പല പല സാഹചര്യങ്ങൾ കാരണം ഇപ്പം നമ്മൾ മഴ പെയ്താൽ വിറക് നനയും അപ്പം നമുക്കന്ന് തീ പിടിപ്പിക്കാൻ കഴിയില്ല അതുപോലെത്തന്നെ വിറക് മാത്രം പോര നമുക്ക് ഓല വേണം ചേരി വേണം അപ്പം അതൊക്കെ നമുക്ക് ഒത്ത് വരുമ്പോൾ ചിലപ്പം അത് നമുക്ക് സാഹചര്യങ്ങൾ ചിലപ്പം അത് സംഭവിക്കില്ല പക്ഷേ എൽ പി ജി ആണെങ്കിലും നമുക്ക് ഒരു ലൈറ്ററേറ്റൊന്ന് ഗ്യാസ് ഓണാക്കി ലൈട്രൈറ്റൊന്ന് കത്തിച്ചാൽ തീ വരും തീ അപ്പം ഈ ഏറ്റവും നല്ലത് എൽ പി ജി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പെട്ടന്ന് സമയം പെട്ടെന്ന് നമുക്ക് അത് റെഡിയായി കിട്ടും അതുപോലെത്തന്നെ കരിയൊന്നും പിടിക്കില്ല നമ്മളുടെ പാത്രത്തിലോ അങ്ങനെ അതിലൊന്നും കരിയൊന്നും പിടിക്കില്ല പക്ഷെ നമ്മളതൊരു തീ പിടിപ്പിക്കലാകുമ്പോൾ നമുക്ക് തന്നെ കുറേ ഇൻഫെക്ഷൻസ് മീൻസ് വെണ്ണൂറ് വെണ്ണൂറ് വെണ്ണൂറ് അതുപോലെത്തന്നെ വിറക് നമ്മൾ നമുക്കെപ്പോഴും കിട്ടണം എന്നൊന്നും ഇല്ല വിറക് കാരണം വിറക് ചില വീടുകളിൽ ഉണ്ടാവില്ല ചില വീടുകളിൽ ഉണ്ടാവും വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ മഴ കാരണം അത് നനഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പ അതൊന്നും നമുക്ക് അപ്പം ആ ഒരു ടൈമിൽ ഐ തിങ്ക് വിറകങ്ങനെ പെട്ടെന്നൊന്നും പിന്നെ തീ പിടിപ്പിക്കാൻ കുറച്ച് പണിയാണ് കാരണം കുറേ നമ്മൾ ഊതി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ചുമച്ച് അങ്ങനെയൊക്കെ കുറേ കുറേ ബുദ്ധിമുട്ടാണ് ഒരു തീ പിടിപ്പിക്കൽ ആണ് അപ്പം വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം എൽ പി ജി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീ നമുക്ക് പെട്ടെന്ന് ചൂടാക്കാനും പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമാണ് എൽ പി ജി ഗ്യാസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെത്തന്നെ പാത്രങ്ങൾക്കൊന്നും കരി പിടിക്കില്ല നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസോ അതുപോലെതന്നെ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല കാരണം അത് സേഫാണ് പിന്നെ നമ്മൾ ഇപ്പം തീ പിടിപ്പിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീയിൽ നമ്മൾ വിറക് കത്തിച്ച് അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ അത്യാവശ്യം ടൈമെടുക്കും കാരണം അത് കുറച്ച് സമയമാണ് തീ ഒന്നും കത്തി വരണമെങ്കിൽ അത് കത്തി വന്ന് നമ്മൾ പാത്രത്തിലൊക്കെ കരി പിടിക്കും പിന്നെ നമുക്ക് അത് മൂലം അതായത് ആ തീ പിടിപ്പിക്കുന്ന മൂലം നമുക്ക് തന്നെ കുറേ അസുഖങ്ങളൊക്കെ വരും കാരണം ആ തീൻ്റെ പുക വെണ്ണൂറ് ഒക്കെ നമ്മൾ നമ്മുടെ ശ്വാസ ശ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റുകയാണ് അപ്പം അതൊക്കെ കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ